ഞാൻ ഒരു മൊബൈല് ഫോണ് ആണ് ഓര്ഡര് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതു കുഴപ്പമില്ല ഞാന് ഫ്ലിപ്പ്കാര്ട്ട് വഴിയാണ് ഓര്ഡര് ചെയ്തത്

നല്ല ജി ബി ഉണ്ട് അതായത് വണ് ട്വൻ്റി എയിറ്റ് ജി ബിയാണ് ഞാന് എടുത്തത് നല്ല റാമുവുണ്ട് നല്ല പെര്ഫോര്മന്സ് ആണ് ലാഗ് ഇല്ല ഫോണ് അങ്ങനെ ഹേങ്ങ് ആവത്തില്ല പിന്നെ പിന്നെയെന്താ പറയുക നല്ല ചാര്ജര് ആണ് അതായത് ചാര്ജറ് കുഴപ്പമില്ല അതായത് ചെറിയൊരു വോള്ട്ടിന്റെ ചാര്ജര് ആണ് ഉള്ളത് പിന്നെ ഹെഡ്സെറ്റ് കൂടെ വരുന്നില്ല പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നല്ലതാണ് നല്ല ക്യാമറയാണ് നമ്മൾക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാന് വേണ്ടിയിട്ട് നല്ല ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് വെയിറ്റ് കുറവാണ് നമുക്ക് യൂസ് ചെയ്യാൻ കൊണ്ടുനടക്കാനൊക്കെ നല്ലതാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫോണാണ് പിന്നെ തിക്ക്നെസ്സ് ഒക്കെ കുറവാണ് അതുകാരണം നമുക്ക് കയ്യിൽ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാന് നല്ല സുഖമാണ് കുഴപ്പമൊന്നുമില്ല നല്ല ഫോണാണ്